ഹലോ ആ പറഞ്ഞോളൂ വാ അലൈക്കും അസ്സലാം ആ അതെ നമ്മള അൽബൈത്ത് ട്രാവൽ ഏജൻസിയാന്ന് ഇങ്ങക്ക് എന്താ വേണ്ടെ എൻ്റെ പേര് സൽമാൻ ആ ആയിക്കോട്ടെ അപ്പം നമ്മൾ ഇപ്പം മുത്തങ്ങ ഫോറസ്റ്റ് ഉണ്ട് അവിടെ ഇവിട ഇപ്പം വയനാട് ഈ അവിടെ നിങ്ങൾ അങ്ങട്ട് നോക്കുന്നോ ആ യെസ് ആ അവൈലബിൾ ആണ് കാരണം മുത്തങ്ങ ഫോറസ്റ്റില് ഇത് ഒരു ഫോറസ്റ്റാന്ന് അവിടെ കുറച്ച് വന്യമൃഗങ്ങൾ ഒക്കെ ഉണ്ടാകും അതൊന്നും സീൻ ഉണ്ടാവില്ലല്ലൊ അതിന് ഒക്കെ നല്ല സെക്യൂരിറ്റി ആയിട്ട് നമ്മ ഇവിടന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആ റൈറ്റ് ഒര് പെർ ഹെഡ് നൈൻ തൗസൻഡാന്ന്

ആ ഫുഡ്ഡ് ഒക്കെ ഇൻക്ലൂഡ് ആണ് നൈറ്റ് സ്റ്റേ എല്ലാം ഉണ്ട് എസി റൂംസാന്ന് എല്ലാം സീനാ ആ ട്രക്കിംഗ് അവൈലബിൾ ആണ് എല്ലാം ഉണ്ട് ഓ ഓക്കെ തീർച്ചയായും വിളിക്കണം താങ്ക്യൂ ഓക്കെ എന്നാൽ ശരി